ഫോണില് ഞാൻ വാങ്ങിയ ഫസ്റ്റ് പ്രോഡക്ട്ട് എന്ന് വച്ചു കഴിഞ്ഞാല് റിയൽമീ ആണ് റിയൽ മീ എന്ന് വച്ചുകഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതിൻ്റെ ക്യാമറയാണ് ക്യാമറ നല്ല ക്ലാരിറ്റിയാണ് നമുക്ക് എത്ര വേണമെങ്കിലും സൂം ചെയ്തെടുക്കാം പിന്നെ അതുപോലെതന്നെ പ്രോസസിംഗ് എന്ന് വച്ച്കഴിഞ്ഞാല് സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിലുള്ള പ്രോസസ്സിങ്ങും സെറ്റിങ്സും ആണ് റിയൽ മീ യിൽ ഉള്ളത് പിന്നെ മറ്റൊരു ക്വാളിറ്റി എന്ന് വച്ച് കഴിഞ്ഞാല് സ്റ്റോറേജ് കപ്പാസിറ്റിയാന്ന് അറുപത്തിനാല് ജി ബി ആണ് അതുപോലെ തന്നെ നാല് റാ നാല് ജി ബി റാമും ഉണ്ടെന്നതാണ് പിന്നെ അതുപോലെതന്നെ കസ്റ്റമർക്ക് പെട്ടെന്ന് ഉപയോഗിക്കാന് പറ്റുന്ന രീതിയിലുള്ള സെറ്റിംഗ്സും കാര്യങ്ങളുമുണ്ട് മറ്റൊരു സവിശേഷത എന്ന് വച്ച് കഴിഞ്ഞാല് നമ്മള് പെട്ടെന്ന് ഹീറ്റ് ആകില്ല ഫോണ് മറ്റെ ഫോണിനെ അപേക്ഷിച്ച് പെട്ടെന്ന് ഫോൺ ഹീറ്റ് ആകില്ല നമുക്ക് ചാർജിന് ഇട്ടു കഴിഞ്ഞ് കഴിഞ്ഞാലും അങ്ങനെ ഹീറ്റ് ആകില്ല അതുപോലെതന്നെ കൂടുതൽ സമയം കോൾ ചെയ്യുമ്പോൾ പെട്ടെന്നൊന്നും ഹിറ്റ് ആകില്ല ഫോണ് പിന്നെ കുറേ നമ്മള് ഫോണ് ഉപയോഗിച്ച്കഴിഞ്ഞ് കഴിഞ്ഞാല് ചില ഫോൺ ഹാങ്ങിങ് ഉണ്ടാകും ഹാങ്ങോന്നും ഉണ്ടാകില്ല ഇത് നല്ല രീതിയില് സ്മൂത്ത് ആയിട്ട് ഉപയോഗിക്കാന് പറ്റും അങ്ങോടു ഏകദേശം ഒരു മൂന്നോ നാലു വർഷത്തോളം ഓളം ഒരു കുഴപ്പം ഇല്ലാതെ നല്ല രീതിയില് ഉപയോഗിക്കാൻ പറ്റുന്ന ഫോൺ ആണ് റിയൽമീ ഏതൊരു സാധാരണക്കാരനായ ആൾക്കാർക്കും ചെറിയ പൈസക്ക് കിട്ടുന്നത് ഫോണും കൂടിയാണ് റിയൽമീ